ഈ കളികൾ നാട്ടിൻപുറത്തു കളിക്കുന്ന എല്ലാ കളികളും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല ഈ ഗോലി കളി കുട്ടിയും കോലും അങ്ങനത്തെ ഒന്ന് രണ്ട് കളികളൊക്കെ നോക്കുമ്പോൾ നാട്ടിൻപുറത്തെ കളികളിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കളിക്കാറില്ല പൊതുവെ കളിക്കാറില്ല പക്ഷേ ഈ കളികൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചില കളികൾ ഒരുപോലെയാണ് കളിക്കുന്നത് ക ഒരു ക ഒരു കളിയാണെങ്കിലും പല സ്ഥലത്തും അത് കളിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് പക്ഷേ മ മാറി മാറ്റമുണ്ട് മാറ്റമുണ്ട് കളികളിൽ പക്ഷെ കളികൾ തന്നെ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് വലിയ അറിവില്ല കളികൾ ഇപ്പോഴും കളിക്കുന്നത് ഒരു മാനസിക സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടിയാണ് അത് പലസ്ഥലങ്ങളിലും അവരുടെ കൾച്ചറിനെ അവരുടെ വാല്യൂസിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കളികളൊക്കെ ഉണ്ടാകും അത് നമുക്ക് പറയാൻ പറ്റില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ചില കളികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇല്ലെന്ന് പറയുന്നില്ല ഈ ഗോലി കളി കച്ചികളി അതുപോലെതന്നെ നമ്മുടെ ഈ കുട്ടിയും കോലും ഊഞ്ഞാലാടിക്കളി അങ്ങനെ ഒന്ന് രണ്ട് കളികളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളു